വാട്ടർ അതോറിറ്റിയിൽ നിന്നല്ലേ ആ ഇതെ അത് ഇവിടെ ഒരു കസ്റ്റമർ ആയിരുന്നു വിളിക്കുന്നത് നിങ്ങൾ നിങ്ങൾ എന്താണ് ഈ വാട്ടർ അതോറിറ്റിക്കാർ ഞങ്ങൾക്ക് വെള്ളമെല്ലാം വെള്ളമെല്ലാം ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലല്ലോ അപ്പടി മോശമാണല്ലോ വെള്ളം ചെളി ആയിട്ടും ഭയങ്കര സ്മെൽ ആണ് വെള്ളത്തിന് ഞങ്ങൾക്ക് ഇപ്പം മൂന്ന് നാല് അഞ്ച് ദിവസമായി അങ്ങനെ വെള്ളം കേടായിട്ട് വരാൻ തുടങ്ങിയിട്ട് ഭയങ്കര സ്മെൽ ആണ് വെള്ളത്തിന് ഇനി ആ കുളത്തിൽ വല്ലതും ചത്തു ചീഞ്ഞ് വല്ലതും കിടപ്പുണ്ടോ എന്ന് വല്ലതും നിങ്ങൾ നോക്കിയോ നിങ്ങൾ എന്താണ് വെള്ളം ഇങ്ങനെ മോശാകുന്നതെന്നു നോക്കുന്നൊന്നുമില്ലേ വെള്ളം സപ്പ്ളെ ചെയ്തു പിന്നെ അതിൻ്റെ ബാക്കി ഒന്നും നിങ്ങൾ നോക്കുന്നില്ല അതെന്ത് പരിപാടിയാണ് സ്ഥലം പണിക്കങ്കുടി നിങ്ങൾ ക്ലീൻ ആക്കി ക്ലീനാക്കി എന്ന് പറയുന്നതേ ഉള്ളു പക്ഷേ ഞങ്ങൾ നോക്കുമ്പോഴെല്ലാം ഞങ്ങൾക്ക് വരുന്നതെല്ലാം ചീത്തയായ വെള്ളമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നേയും പിന്നേയും ഈ വിളിച്ചു നിങ്ങളെ ശല്യം ചെയ്യുന്നത് എവിടെയാണ് കാണുന്നില്ല

ഇപ്പം നിങ്ങളെ അറിയിച്ചിട്ട് ഞങ്ങൾ എങ്ങനെ വെള്ളമെടുക്കും ക്ളീനാകാതെ ഞങ്ങൾക്ക് വെള്ളത്തിന് ആവശ്യമുള്ളതല്ലേ നിങ്ങൾ എപ്പോഴും ക്ലീൻ നിങ്ങൾ എപ്പോഴും ക്ലീനാക്കാം ക്ലീനാക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വെള്ളത്തിന് ആവശ്യമുള്ളതല്ലേ ഞങ്ങൾ കാശ് കൊടുത്താണ് വെള്ളമെടുക്കുന്നത് ഞങ്ങൾ കാശ് കൊടുത്തിട്ടല്ലേ ഈ വാട്ടർ അതോറിറ്റിയിൽ ഞങ്ങൾ വെള്ളം ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ വാട്ടർ അതോറിറ്റികാർക്ക് വെള്ളം തരുക എന്നുള്ളത് മാത്രമല്ല അവരുടെ കടമ ഈ വെള്ളം മോശമായാൽ അത് ക്ലീൻ ആക്കി തരേണ്ട ചുമതലയും നിങ്ങൾക്ക് ഉള്ളതാണ് അങ്ങനെ ചെയ്യാൻ വേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുമല്ലോ ആ എന്നാൽ ശരി കേട്ടോ ഓക്കെ